അതായത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഈ കുരുമുളക് കൃഷി പിന്നെ കാപ്പി കൃഷി തേയില കൃഷി നെല്കൃഷി ഇതൊക്കെ ഒരു തലമുറ മുമ്പ് വരെ ഭയങ്കരമായിട്ട് നടന്നു അതായത് ഒരു പരമ്പരാഗത രീതിയിൽ തന്നെ ഇങ്ങനെ നടന്നു കൊണ്ടിരുന്ന ഒരു ഇതാണ് അതായത് കുരുമുളക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ കുരുമുളക് ഭയങ്കര ഭയങ്കര അധികം വില മതിക്കുന്ന ഒരു ഇതായിരുന്നു അതിന് വേണ്ടി തന്നെയാണ് ഇവിടെ ബ്രിട്ടീഷുകാർ അതുപോലെ വേറെ വേറെ ആൾക്കാരൊക്കെ വന്നത് തന്നെ പക്ഷെ ഇപ്പോഴും ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അത് നമുക്ക് ഒന്ന് കേരളത്തിൻ്റെ അകങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ കാണാൻ പറ്റും കുരുമുളക് കൃഷി ആയാലും ഒരു സീസൺ എത്തുമ്പോഴത്തേക്കും ഈ മുതിർന്ന ആളുകൾ പറമ്പിലേക്ക് ഇറങ്ങുകയും പിന്നെ അതിൻ്റെ ചുവട് വൃത്തിയാക്കി വളമൊക്കെ ഇട്ട് പിന്നെ അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും അത് നന്നായി നമുക്ക് കുരുമുളക് തരുന്നതും പിന്നെ കാപ്പി ആയാലും ചുവടൊക്കെ കിളച്ചു ഇങ്ങനെ കിളച്ചു മറിച്ചിട്ട് പിന്നെ അതിൻ്റെ കുറേ ശിഖരങ്ങളൊക്കെ വെട്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും നമുക്ക് നല് നല്ല രീതിക്ക് ലാഭം കണ്ടു പിടിക്കാൻ സാധിക്കുന്ന ഒരു കൃഷി തന്നെയാണ് കാപ്പി കൃഷിയും കുരുമുളക് കൃഷിയും ഇതിപ്പോഴും പാരമ്പര്യമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്